കിണറിൽനിന്നു വെള്ളമെടുക്കുക എന്നുള്ളത് അതു മലയാളികള് സ്ഥിരമായിട്ടു ചെയ്യുന്നൊരു കാര്യമാണ് കിണറെന്നു പറയുമ്പോള് ഓരോ മലയാളിയുടെ വീട്ടിലും ഓരോ കിണര് വച്ചുണ്ടാകും അത്രത്തോളം കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തില് കിണര് എന്നുള്ളതു വളരെ പ്രശസ്തമാണ് കിണറില്ലാത്തവർ കുളങ്ങളിൽ നിന്നും വീടിൻ്റെയടുത്തു പുഴകളുള്ളവർ അതിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്നുണ്ട് ഇപ്പോള് പണ്ടുകാലങ്ങളില് കിണറിൽ ബക്കറ്റ് കെട്ടിയിട്ട് അതിലേക്ക് ഇറക്കി അങ്ങനെ വെള്ളം കോരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് തൊട്ടി കെട്ടി വെള്ളം എടുക്കുക അത്തരത്തില്ല് പല രീതിയിലായിരുന്നു കേരളത്തില് പലയിടത്തും കിണറില്നിന്നു വെള്ളമെടുത്തിരുന്നത് അന്ന് ബക്കറ്റ് കെട്ടി വെള്ളമെടുക്കുമ്പോൾ ഒരുപാട് സമയം ചെിലവാണ് അതുപോലെ അദ്ധ്വാനം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെലവായിരുന്നു അപ്പോള് അതിൽ നിന്ന് ഓരോ ബക്കറ്റ് വെള്ളമെടുത്തു മറ്റൊരു ബക്കറ്റിലേക്കു മാറ്റി പിന്നെ അതു വീട്ടിലേക്കു കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ആളുകളൊക്കെ പണ്ടു കിണറിനടുത്ത് അടുത്തു നിന്നുകൊണ്ടുതന്നെ ബക്കറ്റിൽ വെള്ളം മുക്കി കുളിക്കുന്നൊരു സാഹചര്യമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് ആധുനികമായി പുരോഗതിയുടെ ഭാഗമായിക്കൊണ്ടുതന്നെ നമ്മുടെ ബക്കറ്റ് ബക്കറ്റുകൾക്കു പകരമായി അല്ലെങ്കില് കിണറിൽനിന്നു വെള്ളം കോരുന്നതിനു പകരമായിട്ട് മോട്ടോറുകൾ കണ്ടെത്തി ഇപ്പോള് മോട്ടോറുകള് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുട് വാള്വ് എന്നു പറയും അത് വെള്ളത്തിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് മോട്ടോറടിച്ചുകഴിഞ്ഞാൽ വെള്ളം നമ്മളുടെ ടാങ്കിലേക്കു നേരിട്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോള് മോട്ടറുകൾ ഉപയോഗിക്കുക എന്നു പറയുമ്പോൾ അതു വളരെ എളുപ്പമാണ് ഒരു ഒഡ്പാലേല് ഓസില് ഒഡപാല്വ് ഇറക്കി അത് വെള്ളത്തില് വയ്ക്കുക അതിനുശേഷം ഒരു മോട്ടോർ അതിനു സൈഡില് മഴ നനയാത്ത രീതിയിലൊക്കെ ഒന്നു സംരക്ഷിച്ചുവയ്ക്കുക കൂടുതൽ നാളുകള് പോകുന്നതിനുവേണ്ടി അങ്ങനെ ആ മോട്ടോറടിക്കുന്ന സാഹചര്യത്തിൽ മോട്ടോര് അടിക്കുമ്പോൾ തന്നെ ആ ഫുഡ്വാലിലൂടെ വെള്ളം കയറിക്കൊണ്ട് ആ വെള്ളം നേരെ എത്ര ഉയരത്തിലാണേലും നല്ല ശക്തിയോടു കൂടി വെള്ളം എത്തുന്നതാണ് അതുകൊണ്ടുതന്നെ ഇവിടെ അദ്ധ്വാനം കുറവാണ് അതുപോലെ തന്നെ സമയച്ചെലവു കുറവാണ് പക്ഷെ നമ്മള് കറണ്ട് ചാർജ് കുറച്ചു കൊടുക്കണമെന്നു മാത്രം അപ്പോള് ഈയാധുനികമായ കാലത്തു നാം തീർച്ചയായും മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടുതന്നെ വീടുകളിൽ വെള്ളം അടിക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും എളുപ്പം